ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പിന്നെ ഓർമ്മ വരുന്നത് അതായത് ക്രിക്കറ്റ് ഫുട് ബോൾ അങ്ങനെയുള്ള കായിക വിനോദങ്ങൾ ഒക്കെയാണ് പിന്നെ കായിക വിനോദങ്ങൾ ഒരുപാടുണ്ട് ഷട്ടിലുണ്ട് ഹോക്കിയുണ്ട് അങ്ങനെ പലതരം കായിക വിനോദങ്ങൾ ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ആൾക്കാരുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു കായിക വിനോദമാണ് ക്രിക്കറ്റ് ഫുട് ബോളൊക്കെ അപ്പം പിന്നെ ക്രിക്കറ്റ് കളി ഫുട് ബോൾ കളി അങ്ങനെ അതൊക്കെ ടിവിയിൽ വരുമ്പം അതിനായിട്ട് പിന്നെ അതിനായിട്ട് രണ്ടുമണിക്ക് മൂന്ന് മണിക്കൊക്കെ എണീറ്റ് രാത്രി എഴുന്നേറ്റു കാണുന്ന ഒരുപാട് പേര് ഒരുപാട് ചെറുപ്പക്കാർ നമുക്കെന്ത് ചെറുപ്പക്കാരൻ എന്നല്ല വയസ്സായവരായാലും നമുക്കിടയിൽ ഒരുപാടുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അതായത് പ്രശസ്തരായ ചില കായിക താരങ്ങളുടെ പേര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിൻ പിന്നെ വിരാട് കോഹ്ലി പിന്നെ ഫുട് ബോൾ ആണെങ്കിൽ മെസ്സി റൊണാൾഡോ നെയ്മർ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് പേർ പറയാനാണെങ്കിൽ ഒരുപാട് നമുക്ക് പിന്നെ അതായത് രോഹിത് ശർമ്മ അങ്ങനെയുള്ള രാഹുൽ ദ്രാവിഡ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്